ടൂറിസ്റ്റ് സീസൺ എപ്പോഴും വെക്കേഷൻ ടൈമില് തന്നെയാണ് ടൂറിസ്റ്റ് സീസൺ എപ്പോഴും വെക്കേഷൻ ടൈമില് തന്നെയാണ് കാരണം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് പിന്നെ വെക്കേഷനിലാണല്ലോ എല്ലാവർക്കും യാത്ര താൽപര്യപ്പെടുന്നത് വേറെ പ്രശ്നങ്ങളും തിരക്കുകളുമൊന്നുമില്ലാതെ ടൂറിസ്റ്റ് സീസൺ ഞങ്ങളുടെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹൗസ് ബോട്ടും കാര്യങ്ങളുമുണ്ട് ഞങ്ങളുടെ നാട്ടില് ഹൗസ് ബോട്ടുണ്ട് ബീച്ചുണ്ട് പിന്നെ ഈ കായലോര പ്രദേശാണ് ഞങ്ങളുടേത് ആറി ആറ്റിലൂടെയൊക്കെ രാവിലെ രാവിലെ മുതല് അതായത് ഒരൊമ്പത് മണിക്കോ ഒമ്പത് മണിക്ക് സ്റ്റാര്ട്ട് ചെയ്യുന്ന ടൂറിസ്റ്റ് ഇപ്പോള് ഹൗസ് ബോട്ടാണ് ഞാനീ പറയുന്നത് ഹൗസ് ബോട്ടിലെ ഒരൊമ്പത് മണിക്ക് കയറിക്കഴിഞ്ഞാല് വൈകിട്ട് ആറ് മണിക്ക് തിരിച്ചിറങ്ങാം അപ്പോള് ഫുഡും കാര്യങ്ങളുമെല്ലാം അവിടെ നമ്മള് ഇത്ര രൂപ അടച്ചാല് മതി അപ്പോള് അവിടെ ഫ്രീ ആയിട്ട് നമ്മളെ അതായത് ഫ്രീ എന്നുവച്ചാല് നമ്മള് പൈസ അടച്ചു കഴിയുമ്പോള് ഫ്രീയായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ബാക്കി ചെലവുകളൊക്കെ അവര് നോക്കിക്കോളും പിന്നെ നമ്മള് പ്രത്യേകിച്ച് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട കാര്യമില്ല ഫുഡ് കാരണം പിന്നെ നമ്മളാ ബോട്ടില് ഇപ്പോള് എന്റെ വീട് തന്നെ പള്ളാതുരുത്തിയിലാണ് ഇപ്പോള് പള്ളാതുരുത്തി പാലത്തിത്തിന്റവിടുന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പോള് നമ്മളെ അവിടുന്ന് അവര് നേരെ ഹ ഹൗസ് ബോട്ടില് കയറ്റി നമ്മളെ കായലുകളും ഒത്തിരി രസക ഒത്തിരി കാണാനൊണ്ട് കായലും ടെര്മിനലില്നിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൈനേരിയില് പിന്നെ ചാവറ പള്ളിയുണ്ട് ചിലപ്പോള് ചാവറ പള്ളിയിലേക്കും പോവുന്നവരുണ്ട് ചാവറ അച്ചന് വിശുദ്ധ എന്താണ് കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ ചാവറ പള്ളിയിലേക്ക് ഇപ്പോള് അവരുടെ വീടും പള്ളിയൊക്കെ കാണാനായിട്ട് അവിടെയും ആള്ക്കാരൊക്കെ പോകാറുണ്ട് അങ്ങനെ ഒത്തിരി ഹൗസ് ബോട്ട് യാത്രകള് നടക്ക നടത്ത ഒത്തിരി പ്രത്യേകിച്ചും പുറത്തൂന്ന് ആള്ക്കാര് നമ്മുടെ സ്വന്തം ഈ നാട്ടുകാര് പോലും കായലുകളും മറ്റും കാണാൻ വേണ്ടി ഹൗസ് ബോട്ടിൽ പോകുന്നത് ഞാൻ കാണാറുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലമാണ് വിനോദ സഞ്ചാരികള് കൂടുതല് വരുന്ന സ്ഥലമാണ് ബീച്ച് ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ചിലും ഇതുപോല തന്നെ ഒത്തിരി ആൾക്കാര് വന്ന് ഒത്തിരി കാഴ്ചകള് അതായത് കടല് കാണാനും കടല് കടലില് എന്ജോയ് ചെയ്യാനും അതിനോട് ചേര്ന്ന് ഒരു പാര്ക്കുണ്ട് കുട്ടികള് കുട്ടികളുമായിട്ട് വരുന്നവർ ഇപ്പോള് പകല് സമയത്തൊക്കെ അവിടെ നല്ല വെയിലായിരിക്കും ആ വെയിലിന്റെ സമയത്തൊക്കെ കൂടുതലുമാൾക്കാര് എന്നാ എടുക്കും പാ പാര്ക്കിലേക്ക് പിള്ളേരൊക്കേയായിട്ട് അപ്പോള് വലിയവർക്കും കയറാം പാർക്കില് പോയി അവിട ഒന്ന് റസ്റ്റെടുക്കുവോ ഒന്ന് ഇരിക്കയോ ചെയ്യാം അപ്പോള് പിള്ളാര്ക്കൊക്കെ അവിടെനിന്ന് എന്ജോയ് ചെയ്യാം ഒത്തിരി കളിക്ക കാണാനും കളിക്കാനും ഒക്കെ ഒള്ള കുട്ടികൾക്കുമുണ്ട് അവിടെ ഉണ്ട് ഒരു ബോട്ടിങ്ങ് ഒരു ചെറിയ ഒരു കുളത്തില് ബോട്ടിങ്ങുണ്ട് ആ ബോട്ടില് കയറി കുട്ടനാട്ടുകാരെ അല്ലെങ്കില് ആലപ്പുഴക്കാരെ സംബന്ധിച്ചടുത്തോളം അത്ര വലിയ താല്പര്യമില്ലെങ്കിലും പുറമേ വരുന്നവര്ക്ക് വലിയ ഒരു എന്ജോയ് തന്നെയാണ്തക്കെ ഒന്ന് കാണുന്നതും കയറുന്നതുമൊക്കെ നമ്മുടെ നാട്ടിലുള്ളവര് പോലും ഇതില് കയറി എത്രയോ പ്രാവശ്യം എന്ജോയ്യ്യാ അതുപോലെ തന്നെ അയല്ക്കൂട്ടക്കാരോ അല്ലെങ്കില് ഏത് മേഖലക അയല്ക്കൂട്ടമോ അല്ലെങ്കില് സ്കൂളില്നിന്നുള്ളതോ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കില് ബാ അങ്ങനെ ജോലിക്കാര് തന്നെ അവര് ഗ്രൂപ്പായിട്ട് വന്ന് ഹൗസ് ബോട്ടില് യാത്ര നടത്താറുണ്ട് അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളും വിനോദസഞ്ചാരികള്ക്ക് മാത്രം ഉള്പ്പൊ ഉപകാരപ്പെടുന്നതല്ല ഈ ഹൗസ് ബോട്ട് എല്ലാവര്ക്കും ഒരുപകാരപ്രദമാണ് കാരണം ഒരു മീറ്റിങ്ങ് നടത്തണമെങ്കിലും ഒരു ഹൗസ് ബോട്ടെടുത്ത് ഹൗസ് ബോട്ടില് യാത്ര ചെയ്തിട്ട് അവര് ഒരു സൈലന്റ്റായിട്ടുള്ള ഏരിയ അതായത് ഈ കായല് മേഖലകളിലൊക്കെ പോയി അവിടെ ഇരുന്ന് എത്രയോ ആ ഗ്രൂപ്പുകള് വന്ന് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എത്രയോ ആള്ക്കാര് ടൂ ടൂര് പോയിട്ടുണ്ട് അവിടെ ഇപ്പോള് പ്രത്യേകിച്ച് നമ്മ നമ്മളേക്കെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചടുത്തോളം എനിക്ക് വലിയ കൗതുകമില്ലായിരിക്കാം കാരണം മറ്റ് സ്ഥലങ്ങളില്നിന്നു വരുന്നവര്ക്ക് അതു നല്ല രസകരമായ കാഴ്ചകള് കാണാം അതുപോലെ തന്നെ ചമ്പക്കുളം പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകള് ആള്ക്കാര് വരാറുണ്ട് ഈ ഹൗസ് ബോട്ടില് തന്നെ യാത്ര ചെയ്ത് അവടൊക്കെ ഒന്നിറങ്ങി അവടെ കയറി ഒന്ന് പ്രാര്ത്ഥിച്ച് അല്ലെങ്കില് അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിറങ്ങി എത്രയോ പേരാണു വരുന്നത് അപ്പോള് അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങള് തന്നെ അതൊരു പ്രത്യേക സീസണില് തന്നെ കുട്ടികള്ക്ക് പ്രത്യേകിച്ച് ക്രിസ്മസിനാണ് ഞാന് കൂടുതലും കാണാറുള്ളത് ക്രിസ്മസ് അവധിക്ക് ഏതു രാജ്യക്കാരാണെങ്കിലും വന്നിറങ്ങി ഹൗസ് ബോട്ടിലവര് എന്ജോയ് ചെയ്ത് ഒരു യാത്രയും അതിന് അതിനോടനുബന്ധിച്ച് ഈ ഹൗസ് ബോട്ട് പള്ളാത്തുരുത്തിയില്നിന്ന് തുടങ്ങി ചിലപ്പോള് അവര് ആലപ്പുഴയിലായിരിക്കും കൊണ്ടിറക്കാറുള്ളത് ആ ആലപ്പുഴയിലിറങ്ങിയിട്ട് അവര് അവിടെ കയറി ആലപ്പുഴയിലിറങ്ങി ആലപ്പുഴ ബീച്ചിലുമൊക്കെ ഒന്ന് കറങ്ങി അതുപോലെ തന്നെ രസകരമായിട്ട് ട്ടും ഇത് ഒരു ഫാവ് ആലപ്പുഴക്കാരെ സംബന്ധിച്ച് ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ച് കാഴ്ചയാണ് ചെറപ്പ് എന്നു പറയുന്നേ അതായത് ഒരു മുല്ലയ്ക്കല് ഒരു അമ്പലത്തിലെ ഒരു ഉല്സവമാണ് അത് മുല്ലയ്ക്കല് അമ്പലത്തിലെ ഉല്സവം എന്ന് പറയുന്നത് ഹിന്ദുക്കള്ക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ആ അവിടെ ആ ഒരു ചെറിയ റോഡേ കൂടെയുള്ള ഒരു ചെറിയ യാത്രയും അതൊരു നല്ല രസമാണ് അത് കേട്ടോ അത് നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ് അത് ജാതി ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇത് ഒരു എന്ജോയ്മെന്റ് ആ വഴിയില്കൂടൊരു നടപ്പ് ഒരു ഇപ്പോള് ഒത്തിരി കടകളും കാര്യങ്ങളും അതും ഒരു രസമാണ് അത് വിനോദസഞ്ചാരികള് വരുന്നേ അത് സീസണായിട്ട് പറയാന് പറ്റത്തില്ല വിനോദ സഞ്ചാരികള് ഉണ്ടെങ്കില് അവര് കാണും അത്രയേ ഊള്ളൂ അല്ലാതെ എല്ലാവര്ക്കും രസകരമായ ഒരു കാഴ്ച നടക്കുന്ന സ്ഥലം തന്നെയാണ് അതും അങ്ങനെ വിനോദസഞ്ചാരികള്ക്ക് കൂടുതലും കൂടുതലും ഇവിടെ കാണാറുള്ളത് വെക്കേഷന് ടൈമില് തന്നെയാണ് അല്ലാതെ അല്ലാതല്ല എപ്പോഴും വെക്കേഷന് ടൈമില് തന്നെയാണ് ഇത് കാണാറുള്ളത്